വിവിധയിനം ഒഴിവുസമയ പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കേരളത്തിലെ പ്രധാന വിനോദകേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് വിനോദസഞ്ചാരകേന്ദ്രങ്ങളുണ്ട് അതുപോലെ ഒരുപാട് മാളുകളുണ്ട് ഇപ്പോൾ ഷോപ്പിംഗ് മാളുകളായിക്കോട്ടെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളായിക്കോട്ടെ ഇപ്പോൾ മാളുകളിൽ തന്നെ ഇപ്പോൾ കോഴിക്കാടാണ് മിന്നുമാൾ അതുപോലെ നമ്മുടെയിപ്പോൾ ഇവിടെത്തന്നെയാണെങ്കിലും നമുക്കിപ്പോൾ ഒഴിവുസമയത്ത് നമ്മൾ ആവശ്യമായ സാധനങ്ങൾ വാങ്ങുക അതുപോലെ ഫ്രീയായിരിക്കുന്ന സമയത്താണല്ലോ നമ്മൾ പുറത്തോക്കെ ഒന്ന് പിന്നെ കുടുംബക്കാരുമൊത്തൊന്ന് പുറത്തൊക്കെ പോവുക അതൊക്കെയാണല്ലോ ചെയ്യാറ് ഒഴിവുസമയം അതിനുവേണ്ടീട്ട് നമ്മൾ ഇപ്പോൾ പിന്നെ വലിയ ഹൈപ്പർമാർകെറ്റ്ന്ന് നമ്മളെല്ലവരും കൂടെ സാധനങ്ങൾ വാങ്ങാൻ പോവും അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ ഷോപ്പിംഗ് മാളുകളിൽ പോം പിന്നെ ലുലു മാള് അതുപോലുള്ള മാളുകളിൽപ്പോയാൽ നമുക്ക് എല്ലാ ഇപ്പോൾ വാ സാധനം വാങ്ങുന്നില്ലെങ്കിലും ഒന്ന് കണ്ടിട്ടാണെങ്കിലും നമ്മൾ സമയം പോവുവല്ലോ പിന്നതുപോലെ റെസ്റ്റോറൻറ്റിൽ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക നമുക്ക് ഇഷ്ട്ടപ്പെട്ട എന്താണോ ഫുഡ് അത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റില് ഫുഡ് കഴിക്കുക പിന്നതുപോലെ എല്ലാവർക്കും ആണെങ്കിൽ ഇപ്പോൾ ബോയ്സിനാണെങ്കിൽ ആൺ ആൺകുട്ടികൾക്കാണെങ്കിലുമൊക്കെ ഇപ്പോൾ ജോലി ജോബില്ലാത്തവർ സമയത്താണെങ്കിലും ഇപ്പോൾ ഒരു ദിവസം ലീവാണെങ്കിൽപോലും ടറഫിൽ പോയി കളിക്കുക അതുപോലെ ക്ലബ്ബ്കളിൽപോയി കളിക്കുക ഇതൊക്കെയാണ് ഒഴിവുസമയങ്ങളിൽ വിനോദസഞ്ചാരകേന്ദ്രം വിനോദകേന്ദ്രങ്ങൾ എന്നുവെച്ചാൽ ഇപ്പോൾ സോഭാ സിറ്റി മോള് അതുപോലെ പബ്ബുകളുണ്ട് അവിടെയൊക്കെ പോയിട്ട് അവർ അവരുടേതായ ജോബിൽ അവരുടേതായ കളികളിൽ ഇപ്പോൾ കാരംസ് കളിക്കുക പിന്നെ ഷട്ടിൽ കളിക്കുക അതുപോലെ ഫുട്ബോൾ ക്രിക്കറ്റ് ഇതുപോലെത്തെയൊക്കെ കളിയ്ക്കാൻ ടർഫുകളും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ പോയിട്ടാണ് സമയങ്ങൾ ചിലവഴിക്കുന്നത്